എന്റെ മാതൃഭാഷയിൽ അല്ലാത്ത പുസ്തകം പഠനകാലത്തൊക്കെ ഞാ വായിച്ചിട്ടുണ്ട് വിവർത്തനം ചെയ്ത പുസ്തകം വെനീസിലെ വ്യാപാരി ജീൻവാല് ജീന് അതൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ വിവര്ത്തനം ചെയ്ത കോപ്പിയേക്കാട്ടിലും എപ്പോഴും ഒരു നോവൽ ഒക്കെ വായിക്കുമ്പോൾ ഒറിജിനൽ തന്നെ വായിക്കുന്നത് നല്ലത് അതായത് ഏത് ഭാഷയിലാണോ ആ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഭാഷയിൽ അത് വായിക്കുന്നതാണ് നമുക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത് അവർ ഉദ്ദേശിക്കുന്ന ആ ഫീലിങ്ങ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഗ്രന്ഥം എഴുതിയ അതേ ഭാഷയിലത് വായിക്കുന്നതാണ് നല്ലത് ഇതാണെന്റെ അഭിപ്രായം പിന്നെ ലോകത്തിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട നിങ്ങളുടെ മാതൃഭാഷയിൽ ഉള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേര് അതിനേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപക്ഷേ ഇഷ്ടപ്പെടണമെന്നില്ല ബൈബിളിലെ ഒരു ഗ്രന്ഥമുണ്ട് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാവരും വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു വ്യക്തി എങ്ങനെ ആയിത്തീരണം നല്ല രീതിയിൽ ഒരാൾ മുൻപോട്ട് പോകണമെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ ഏതൊക്കെ മാർഗങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ പോകണം എന്ന് ആ പുസ്തകത്തിൽ നിന്ന് നമുക്കറിയാന് സാധിക്കും ഞാനിവിടെ പറയുന്നത് എന്റെ അനുഭവമാണ് ഇത് ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ അനുഭവം ഞാനാ അനുഭവിച്ചറിഞ്ഞതിനെക്കുറിച്ച് പറയുന്നതാണല്ലോ ഏറ്റവും നല്ലത്